പ്രായമായ ആളുകൾ കിടപ്പിലാകാൻ ഒരുപാട് കാരണങ്ങളും പല രോഗ അവസ്ഥകളെയും അവർ അവരിൽ എത്തിക്കുന്നു ചിലർക്ക് ക്ഷയരോഗം അതുപോലെയുള്ള പല രോഗാവസ്ഥയിലൂടെയും കടന്ന് പോയവരായിരിക്കും ചിലർ കിടപ്പിലാകുന്നത് ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ് ചിലർക്ക് അപകടങ്ങൾ ലഭിച്ചത് കൊണ്ടാവാം ചിലർ അതിൻ്റെ ബാഹികമായ കാരണങ്ങൾ കൊണ്ടാവാം ജോലിയിലുള്ള ശാരീരീകമായ ക്ഷമത നശിക്കുന്നത് കൊണ്ടാവാം ഒരുപാട് ഭാരപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് കാലക്രമേണ മുതു വേദന കൈകാലുകൾക്ക് വേദന എല്ലിനു തേയ്മാനം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടു വരുന്നുണ്ട് പലരും ഇന്നത്തെ പ്രായമായവരിൽ പലതും ശാരീരികമായി ഉള്ള ജോലികളാണ് ചെയ്തിരുന്നത് അതുപോലെത്തന്നെ പല രോഗങ്ങളും ഇതിന് കാരണമാകുന്നു നാട്ടിലെ ആളുകൾ അവരെ നല്ല രീതിയിൽ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് ഇതിനായി വീട്ടിൽ അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നു ഭക്ഷണം നൽകുന്നു മരുന്നുകൾ നൽകുന്നു അതുപോലെ എല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് ഒപ്പം പാലിയേറ്റിവ് കെയർ യൂണിറ്റ് പോലെയുള്ള സംഘടനകളും ഇതിനായി സഹായം തരുന്നു മരുന്ന് എത്തിച്ച് നൽകൽ ശുശ്രുഷയ്ക്കുള്ള നിർദേശങ്ങൾ നൽകൽ ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇവരെ ശുശ്രുഷിക്കുക എന്നുള്ളത് കുറച്ച് കഷ്ട്ടപ്പാടുള്ള കാര്യം തന്നെയാണ് പക്ഷെ എങ്കിലും അവരുടെ ഉറ്റവരും കുടുംബാംഗങ്ങളും അവരെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് എല്ലാ ദിവസവും അവരെ പരിചരിക്കേണ്ടതായിട്ട് ഉണ്ട് സ കൃത്യമായ സമയത്ത് ഭക്ഷണം നൽകണം അതും അവരുടെ രോ അവർക്ക് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ നൽകുന്ന ആഹാരങ്ങൾ തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അവരെ വൃത്തിയാക്കേണ്ടത് ഇടയ്ക്കിടെ അവരെ ശരീരം വൃത്തിയാക്കേണ്ടതുണ്ട് അതിനായി പലരും കഷ്ട്ടപ്പെടുന്നതായിട്ട് അറിയാനും കഴിഞ്ഞു എങ്കിലും അധികം പേരും ഇത് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ചില ആളുകൾ ഇവരെ പരിചരിപ്പിക്കാനായി ജോലിക്കാരെ നിയമിക്കാറുണ്ട് ഇവർ ഇതിൻ്റെ പ്രൊഫഷ ഇതിനെപ്പറ്റി പഠിച്ച് ട്രെയിനിങ് നേടിയിട്ടുള്ളവരാണ് ഇവരൊക്കെ ഒരു നല്ല രീതിയിൽ നോക്കുവാനും പരിചരിക്കുവാനും കഴിയും